ആരാണ് ആ വൈഷ്ണവി എന്തുണ്ട് വിശേഷം പറയു അയ്യോ സാധനങ്ങൾ ആ സാധനങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ ആഴ്ച അതിന്റെ സീസൺ കഴിഞ്ഞ ആ ഒരു ടൈമായിരുന്നില്ലേ ഇപ്പം പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ പച്ചക്കറി ത എല്ലാം വന്നിട്ടുണ്ട് സവാളയും തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വന്നിട്ടുണ്ട്

ആ സാമ്പാറിന് വേണ്ടീട്ടുള്ള പച്ചക്കറികളാണൊ ഈ പറയുന്നത് ആ എന്നാൽ പിന്നങ്ങനെ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ടായിരുന്നല്ലോ ഏയ് വിട്ട് പോയില്ല നിങ്ങളക്കെ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സല്ലേ കടല അ കടല ഇപ്രാവശ്യം വന്നിട്ടില്ല ഞ അടുത്ത പ്രാവശ്യമേ ഇനി കിട്ടൂള്ളൂ തോന്നുന്നു ആ ശരി ഓ ശരി ശരി ആ അ ഇതക്കെ വീട്ടിലെത്തിച്ചാൽ മതിയല്ലോ ഞാനിവിടുത്തെ പയ്യനെ രാമൂനെ പറഞ്ഞ് വിടാം ആ രാമു ഒക്കെ സുഖം ആയിട്ടിരിക്കുന്നു ആ അപ്പം ബില്ലും അവന്റെ കയ്യിലങ്ങ് കൊടുത്ത് വിടാം അതാകുമ്പം അവിടുന്ന് ഫോൺ പേയിലോ അല്ലെങ്കിൽ ഇവിടെ പൈസ ആയിട്ട് കൊടുത്ത് വിട്ടാലും മതി ആ ശരി ശരി എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്തായാലും സാരമില്ല ഇനി എന്തേലും ഓർമ്മ വരുന്നെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെ ഞാൻ രാമൂൻറ്റേൽ കൊടുത്ത് ഇപ്പം ഉള്ള സാധനങ്ങൾ കൊടുത്ത് വിടുമ്പോൾ അതിൽ ഇനി വേറെ എന്തേലും ഉണ്ടെങ്കിൽ അവന്റടുത്ത് പറഞ്ഞ് വിട്ടാലും മതി ആ ശരി ശരി ആ ശരി കൊടുത്ത് വിടാം കൊടുത്ത് വിടാം